ആ ഹലോ ആരാണ്

അയ്യോ ഇപ്പോൾ തന്നെ അത്യാവശ്യമാണോ

കോട്ടയത്ത് നമുക്ക് കളക്ടറേറ്റിൻ്റെ അവിടെ ആ കഞ്ഞിക്കുഴി ഭാഗത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ടെ ബസേലിയസ് കോളേജും പള്ളിയും ഉണ്ട് എല്ലാ സൗകര്യം ഒക്കെയുണ്ട് നമ്മുടെ ജില്ല ഹോസ്പിറ്റലൊക്കെ അതിൻ്റെ അടുത്താണെ പക്ഷെ അത് നോട്ടം ഉണ്ടോ നോക്കണോ അതിനെക്കുറിച്ച് ആ ഗ്രാമത്തിലിപ്പോൾ കുറുവാ സംഘത്തിൻ്റെ ശല്യമല്ലേ എല്ലാവരും ടൗണിലോട്ടു പോരുമായിരുന്നു നമുക്ക് ടൗണിൽത്തന്നെ നോക്കുന്നതല്ലേ നല്ലത് പതിനൊന്ന് രൂപയ്ക്ക് കിട്ടും സെൻറ്റിന് സെൻറ്റിന് ഒരു പതിനൊന്ന് ലക്ഷം ഓ ആണോ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യുക നമുക്കെ ഇച്ചിരി ആ ഉള്ളിലൊന്നു മാറി നോക്കാം എന്നാലും വണ്ടി ചെല്ലുന്ന സ്ഥലം വേണ്ടേ ടാറിട്ട റോഡ് വേണ്ടേ തരാം തരാം നമുക്കെ ടാറിട്ട ഒരു റോഡുണ്ട് നമുക്കു വണ്ടി എല്ലാം വീട്ടിൽ വരും പക്ഷെ ഒരു കാര്യ ഉള്ളതേ അടുത്ത് ഒരമ്പലം ഉണ്ട് കുഴപ്പം ഉണ്ടോ ആ അതു ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്കാ ഇട്ടി മാപ്പിളയെന്നും പറഞ്ഞ് ഒരാൾ ഒരു ഒരു ആറ് സെൻറ്റ് സ്ഥലം ഉണ്ട് അഞ്ചായിട്ട് കിട്ടത്തില്ല ആറായിട്ട് തരാം ആറ് നമുക്കിച്ചിരി ഒതുക്കത്തിൽ മേടിക്കാം ഒരഞ്ചര രൂപയ്ക്ക് മേടിക്കാം അതിനകത്തു നിന്ന് ഞാനൊന്നു നോക്കട്ടെ എൻ്റെ കൂടെ ഒന്ന് നാളെ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വരാമോ കാണിക്കാം റേറ്റ് അഞ്ചരലക്ഷം രൂപ എന്നു പറഞ്ഞാൽ ഇത് അങ്ങേർക്ക് കൊടുക്കേണ്ടതാണ് എനിക്ക് എൻ്റെ കമ്മീഷൻ വേറെ തരണം കമ്മീഷനെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ആറ് സെൻറ്റ് സ്ഥലം വിറ്റു കഴിഞ്ഞാൽ നമുക്ക് മാന്യമായിട്ട് തരണം എന്നാലേ ഞാൻ ആധാരം നടത്തിക്കത്തുള്ളൂ പിന്നെ നമ്മൾ ഈശാ പേശാ പറയേണ്ട കാര്യം ഒന്നുമില്ല സ്ഥലം കണ്ട് നിങ്ങൾ അവർ ആ അഞ്ചു രൂപയിൽ നിന്നു കുറച്ചു തരാം അപ്പോൾ നമുക്ക് ഓട്ടോയിൽ ചെല്ലത്തുള്ളു നമുക്ക് വീട്ടിലേക്ക് ടിപ്പർ ചെല്ലത്തില്ല ടിപ്പർ ചെല്ലണമെന്നുണ്ടെങ്കിൽ അഞ്ചര കൊടുക്കണം അല്ലേ നമുക്ക് നാലു രൂപയ്ക്ക് തരാം നമ്മൾ ഓട്ടോയിൽ വീട്ടിൽ ചെല്ലത്തുള്ളൂ ഓട്ടോ വീട്ടിൽ മുറ്റത്ത് ചെല്ലും പിന്നെ പെട്ടി ഓട്ടോയിൽ നമുക്ക് കരിങ്കല്ലൊക്കെ കൊണ്ടു വരാൻ പറ്റത്തുള്ളൂ അതാ ഒരു കുഴപ്പം പക്ഷെ ഈ അഞ്ചര മുടക്കുകയാണെങ്കിൽ നമുക്ക് ടിപ്പർ വീട്ടിൽ വരും നമുക്കൊരു പുര വെയ്ക്കണമെങ്കിൽ സിമെൻറ്റും കമ്പിയും മെറ്റലും മണ്ണും എല്ലാം നമുക്ക് വീട്ടിലിറക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നല്ല ഒരു പൊങ്ങിയ പുരയിടമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഇതിൻ്റെ അടുത്തു പോലും വെള്ളം വന്നില്ല അത്ര നല്ല വെള്ളമാണ് മഴ പെയ്താലോ ഒരു ശകലം പോലും അവിടെ തങ്ങത്തില്ല മുഴുവനും ഒലിച്ചു പോകും പിന്നെ കൽകെട്ടുണ്ട് ചുറ്റോടു ചുറ്റും നല്ല കൽക്കെട്ടാണ് നല്ല കാറ്റ് കിട്ടും അടുത്തൊരു കിണറുണ്ട് പിന്നെ പഞ്ചായത്തിൻ്റെ വഴിയുണ്ട് എല്ലാം നല്ലതാണ് നിങ്ങൾക്ക് പള്ളിയിൽ പോകാനാണെങ്കിലും അതു കുഴപ്പമില്ല ആശുപത്രിയിൽ പോകാൻ സംവിധാനം ഉണ്ട് അടുത്തൊരു സ്കൂളുണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ് പിന്നെ അയൽക്കാർ എല്ലാം നല്ല മനുഷ്യരാണ് കേട്ടോ ഞങ്ങൾ തന്നെ കുറച്ച് നാളായിട്ട് ഇതിലെ പോകുന്നതു കൊണ്ട് എനിക്കറിയാം ഒരു കാര്യം ചെയ്യാം ഞാനൊരു കാര്യം ചെയ്യാം ഫൈനലായിട്ട് നമുക്കൊരു അഞ്ച് രൂപയ്ക്ക് അഞ്ചു രൂപയ്ക്ക് വേണമെങ്കിൽ നാളെ നമുക്ക് പുള്ളിക്കാരനുമായിട്ടൊന്ന് അഞ്ച് രൂപയിൽ ഒരു രൂപ പോലും കളയത്തില്ല അതു കൂടാതെ എൻ്റെ കമ്മീഷൻ വേറെ തരണം ഇതു നമുക്ക് അഞ്ച് രൂപയെന്നുള്ളത് ഉറപ്പിക്കാം അഞ്ച് സെൻറ്റ് സ്ഥലത്തിനു നിങ്ങൾ ഏതാണ്ട് രണ്ട് അഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു സെൻറ്റിന് അത് നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് മേടിച്ചാൽ